അതെ മ്മ് ഓക്കെ അത് നമ്മള് ഇവിടെ അതൊരു ഭാഗ്യക്കുറി എന്ന് മലയാളത്തിൽ നമുക്ക് പറയാം ഭാഗ്യക്കുറി ടിക്കറ്റ് ശെരിക്കും ഭാഗ്യം തന്നെയാണ് നമുക്ക് ഭാഗ്യവുള്ളവർക്ക് ആ പേപ്പറ് അതായത് ആ ഒരു ടിക്കറ്റ് അതിൻ്റെ നമ്പറാണ് ഈ നമ്പറ് നോക്കി അത് അടിക്കുന്നവർക്ക് നല്ലൊരു പ്രൈസ് തുകയായിട്ടൊക്കെ കൊടുക്കും അതിപ്പം ചെറിയ എമൗണ്ടൊന്നുമല്ല വലിയ വലിയ എമൗണ്ടുകളാണ് ഇപ്പം ഇരുപത് ലക്ഷം അമ്പത് ലക്ഷം അല്ലേൽ പത്ത് ലക്ഷം അങ്ങനെയൊക്കെയുള്ള എമൗണ്ടുകളായിരിക്കും അപ്പോൾ അതടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയത് ചെറിയ പേർസൻറ്റേജ് ഗവർണ്മെന്റിന് പോകും കമ്മീഷനായിട്ട് ചെറിയൊര് പേർസൻറ്റേജ് നമ്മള് ബാങ്ക് വഴിയാണ് നമ്മള് ഇതിൻ്റെയൊക്കെ ഡീലിംഗ്സ് നടത്തുന്നത് പണമിടപാടുകളും നടക്കുന്നത് അപ്പോൾ ബാങ്കിനുമുണ്ട് അതിൻ്റെയൊര് കമ്മീഷൻ പിന്നെ അതിൻ്റെ ബാലൻസായിട്ടാണ് ഈ ഭാഗ്യക്കുറി ആ നമ്മള് വിൽക്കുന്ന ആൾക്കും അതിനുമുണ്ട് ആ ആൾക്കുവുണ്ട് ഇത്ര പേർസൻറ്റേജ് കമ്മീഷനെന്നുള്ളത് അപ്പോൾ എൻ്റെ അറിവില് ഇങ്ങനെയാണ് അതെത്ര ശതമാനമെന്നു കൃത്യമായിട്ട് പറയാനെനിക്ക് പറ്റുന്നില്ല അതതുവായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ട് നമ്മളൊന്ന് തിരക്കിയാലേ അതെത്ര എത്ര പേഴ്സൻ്റെജ് എത്ര പേഴ്സൻ്റെജ് എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ ആ അപ്പം നമുക്കതിന് കമ്മീഷനുണ്ട് ടിക്കറ്റെത്ര വിൽക്കുന്നു അനുസരിച്ചു കൊണ്ട് നമ്മള് കൊടുത്ത ടിക്കറ്റിനാണ് സമ്മാനം അടിച്ചിരിക്കുന്നതെങ്കിൽ അതിനകത്ത് നിന്ന് നമുക്ക് കമ്മീഷനുണ്ട് അങ്ങനെ ശെരിക്കും അതൊര് ലാഭമുള്ള ബിസിനസായിട്ട് തന്നെയാണ് നമ്മളിവിടെ ഒത്തിരി പേര് ജോലി ചെയ്യാൻ കഴിവില്ലാത്തവരൊക്കെ ആ ബിസിനസ് നടത്തി പോരുന്നുണ്ട് അതെയതെ ഓക്കെ അതെ ബിസിനസ്സ് തന്നെ അതിന് ഗ അതിന് ഇവിടെ ഗവണ്മെൻ്റ് സഹായം കൊടുക്കുന്നുണ്ട് അതനുസരിച്ചൊക്കെ വണ്ടിയേൽ കൊണ്ടു നടക്കുന്ന എന്തെങ്കിലും ജോലിയിൽ കൂടുതല് ഇത് ചെയ്യുന്നത് എന്തെങ്കിലും ഇപ്പോൾ അംഗവൈകല്യമുള്ളവരാണ് കാരണം അവർക്ക് ഒരു ജോലി ചെയ്യാനായിട്ട് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട് അവർക്കൊക്കെ ഒരിടത്തിരുന്നാൽ മതി ആ ടിക്കറ്റ് നമുക്ക് വിറ്റ് ചിലവാക്കാം പറ്റും പിന്നെ ഈ മുച്ചക്ര വാഹനം എന്നുപറയുന്നത് അങ്ങനെയുള്ള വണ്ടി ആയിരിക്കുവല്ലോ ഈ പറഞ്ഞ കണക്ക അംഗവൈകല്യക്കാര് ഉപയോഗിക്കുന്ന വണ്ടി ആ അതില് കൊണ്ട് ഇപ്പം നമ്മളാണേലും മനുഷ്യരാണേലും അവരോട് സഹതാപം തോന്നിയിട്ട് ടിക്കറ്റെടുക്കുന്നവരുണ്ട് അത് അയാൾക്കും നേട്ടമാണ് എടുക്കുന്ന ആൾക്കും ചിലപ്പോൾ ഭാഗ്യത്തിന് അതടിക്കാം അങ്ങനെ എന്തുകൊണ്ടും നേട്ടമുള്ള അത് നമുക്ക് തിരിച്ചവരെ ഏൽപ്പിക്കാൻ പറ്റും ലോട്ടറി ഇഷ്യു ചെയ്യുന്നിടത്ത് അത് തിരിച്ച് ഏൽപ്പിക്കാൻ പറ്റും പക്ഷെ ഇവർക്ക് ആ നമ്മള് വിൽക്കുന്ന ആൾക്കിനി എന്തെങ്കിലും കിട്ടുവോ എന്നുള്ളത് അതെനിക്ക് കൃത്യമായിട്ടെനിക്ക് പറയാനായിട്ട് പറ്റുന്നില്ല അത് നമ്മൾ ഈ ടിക്കറ്റിൻ്റെ തന്നെ ആൾക്കാരുവായിട്ട് ബന്ധപ്പെട്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ എൻ്റെ അറിവില് ഇത്രയൊക്കെ കാര്യങ്ങള് മ്മ് അത് ആദ്യം നിങ്ങൾ അക്ഷയ വഴി ഒന്ന് ബന്ധപ്പെട്ട് നോക്ക് അപ്പോൾ അവര് പറഞ്ഞ് തരുവായിരിക്കും മ്മ് കാരണം ഇപ്പം എല്ലാം എല്ലാം കാര്യങ്ങളും അക്ഷയ വഴിയാണ് നമ്മള് വിവരങ്ങള് ശേഖരിക്കുന്നത് മ്മ് മ്മ് ഗവൺമെൻറ്റുവായിട്ട് ബന്ധമുള്ള കാര്യമാണിത് അല്ലാതെ ഇതിന് ലൈസൻസൊക്കെ എടുക്കണം നമ്മള് ചുമ്മാ കുറച്ച് ടിക്കറ്റ് എവിടുന്നേലും എടുത്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നാണ് എൻ്റെ അറിവ് ആ ആ ഞാന് വേറെ ഇതിനുമായിട്ട് ബന്ധൂള്ള ഒരാളെ എനിക്കറിയാം ആ ആളെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ആ ആള് പറഞ്ഞോളും എല്ലാം ഓക്കെ ഓക്കെ